ആളുകളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഒരു പരിധി വരെ സ്വാധീനിക്കാൻ കളികൾക്ക് സാധിക്കുന്നുണ്ട് കളികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ വിജയമായതുകൊണ്ടും ഒരു സന്തോഷം ആയതുകൊണ്ടും തന്നെ ഒരുപാട് പേര് അത് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കാറുണ്ട് അവരുടെ ഇൻട്രസ്റ്റുകൾ അവർ പരസ്പരം പങ്കുവെച്ചും കൂട്ടുകാരാകാറുണ്ട് അങ്ങനെ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ആ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം ക്രിക്കറ്റ് ആണെങ്കിലും ഫുട് ബോൾ ആണെങ്കിലും വടംവലി ആണെ ങ്കലും ഒക്കെ ഒരുപാട് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്ന കളികളാണ് അതൊക്കെ അതൊക്കെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരുപാട് അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കളികളാണ് ഇപ്പം അങ്ങനത്തെ കളികൾ ഒക്കെ കളിക്കുന്നത് അനുസരിച്ച് ജീവിതത്തിൽ ആൾക്കാരുടെ ജീവിതത്തിൽ ആ ഒരുപാട് സന്തോഷം അതിൽ നിന്നും ലഭിക്കാറുണ്ട് അവരുടെ ഇടയിൽ ഒരു ബന്ധം അത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഒരു സൗഹൃദം അത് വളർത്തിയെടുക്കാറുണ്ട് വളരെ നല്ല നല്ല രീതിയിൽ തന്നെ കളികൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്